എൻ്റെ വീടിൻ്റെ പ്രദേശത്ത് സ്റ്റേഡിയം ഗ്രൗണ്ട് ടർഫ് എന്നിവ പല പല കാര്യങ്ങളും ഉണ്ട് അതിൽ ഞങ്ങൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് സ്കൂളിൻ്റെ ഗ്രൗണ്ട് ആണ് ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ എല്ലാം തന്നെ ഉണ്ട് ഒരുവിധം ഒറ്റ ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് ഫുട്ബോൾ കോർട്ട് വോളീബോൾ കോർട്ട് ലഭ്യമാണ് പിന്നെ അല്ലാതെ ഇൻ്റോർ സ്റ്റേഡിയം ആയിട്ട് ഷട്ടിൽ കോർട്ട് ഉണ്ട് പിന്നെ ബാസ്കറ്റ്ബാൾ കോർട്ടുമുണ്ട് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ പല പല ടൂർണ്ണമെൻ്റിലൂടെയും കാര്യങ്ങളിലൂടെയും ആണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാറുള്ളത് വർഷാവർഷേന ഇവിടുത്തെ ക്ലബ്ബിൻ്റെ വക നമ്മളെ നാടിൻ്റെ വക ഒരു പ്രീമിയർ ലീഗ് ഉണ്ടാവുന്നതാണ് അതു മുഖേനയാണ് നമ്മൾ പ്രധാനമായും ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ ഗ്രൗണ്ട് ആണ് യൂസ് ചെയ്യാറുള്ളത് ഗ്രൗണ്ട് നമ്മൾ നമ്മളെ ഒരു ടീം അനുസരിച്ചു തന്നെ പ്രീമിയർ ലീഗ് ഒക്കെ നടത്താറുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നു പിന്നെ നാട്ടിലെ ചെറുപ്പക്കാരുടെ സ്കില്ലും കായികബലവും അളക്കാനും പിന്നെ കായികബലത്തെ കൂട്ടാനും വേണ്ടി നമ്മൾ ഈ ഗ്രൗണ്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് കായികങ്ങൾ നടത്താനുള്ള പിന്നെയുള്ള സൗകര്യമാണ് നമ്മുടെ വീട്ടിലെ കുളം സ്വിമ്മിങ്ങ് ചാമ്പ്യൻഷിപ്പ് ബട്ടർഫ്ലൈ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെയും നടത്താറുണ്ട് മുങ്ങിക്കിടത്തം അങ്ങനെ കുറേ പരിപാടി ഉണ്ട് ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ സ്റ്റേഡിയം ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ നടത്താറുള്ളത് ഇനിയിപ്പോൾ സ്റ്റേഡിയം പറ്റില്ല എന്നു വച്ചാൽ നമ്മൾ എല്ലാവരും ടർഫിൽ പോയാണ് ടൂർണ്ണമെൻ്റ് ഒക്കെ നടത്താറുള്ളത് ടർഫിൻ്റെ ഒരു മികച്ച ഗുണം എന്താണെന്നു വച്ചാൽ ഒരു സ്ഥിരമായ പൈസയ്ക്കു നമുക്ക് ഇത്ര സമയം കളിക്കാൻ പറ്റും അതുകൊണ്ടുതന്നെ നമ്മുടെ ഒരു ദിവസം മൊത്തം ടർഫ് ബുക്ക് ചെയ്തിട്ടാണ് സ്റ്റേഡിയവും എല്ലാ വിധത്തിലും പോയിട്ട് പ്രീമിയർ ലീഗ് നടത്താറുള്ളത്